മൃഗങ്ങളെ കൊണ്ട് നമുക്ക് ഒരിക്കലും നമുക്ക് അവയെ വളർത്തിയാലത് നഷ്ടത്തിലെക്കൊരിക്കലും പോകാറില്ല എന്താന്ന് ചോദിച്ചാൽ ഒരു മൃഗം ഇപ്പം ഒരു പശു ആണെങ്കിൽ അത് നമുക്ക് പാൽ തരും അല്ലെങ്കിലത് നമുക്ക് ഇത് ചാണകം അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് എന്തൊക്കെ ഉപകാരങ്ങളാണ് ആ പശൂനെ കൊണ്ട് ഉള്ളത് ഇത് എല്ലാം കഴിഞ്ഞ് അതിൻ്റെ ലാസ്റ്റ് അവസ്ഥേലേക്കാണതിനെ നമ്മൾ ഇത് അറുക്കാൻ കൊടുക്കുന്നത് അന്നേരം അത് നമുക്ക് പണം സമ്പാദിക്കാനുള്ള ഒരു പ്രക്രിയയാണ് ചെയ്ത് തരുന്നത് ഒരു മൃഗം എന്ന് വെച്ചാൽ അത് നമ്മളെ എപ്പോഴും തന്നെ നമ്മളെ അത് സഹായിച്ച് കൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെയാണ് നമുക്ക് പറയേണ്ടത് എന്ത് മൃഗമാണേലും അത് ഇപ്പോൾ കോഴിയാണെങ്കിൽ എന്താ നമുക്ക് മുട്ട തരുന്നുണ്ട് അതുകഴിഞ്ഞ് നമ്മളാ കോഴിയെ അത് അങ്ങ് ഭക്ഷണവാക്കും ഇപ്പം ആടായിക്കോട്ടെ ആട് പാൽ തരുന്നുണ്ട് അത് കഴിയുമ്പോൾ ആടിനെ നമ്മൾ ഭക്ഷണമാക്കും അതിപ്പോൾ പശുവായിക്കോട്ടെ അങ്ങനെ തന്നെ അത് ഇപ്പോൾ പോത്തായിക്കോട്ടെ അങ്ങനെ തന്നെ അങ്ങനെ എന്താണെങ്കിലും അവയെ നമ്മൾ അങ്ങനെ എന്തിൻ്റെ പേരിലാണെങ്കിലും നമുക്കത് ഒരിക്കലും നഷ്ടത്തിലേക്ക് പോവാറില്ല അത് നമുക്കെപ്പോഴും ഒരു ലാഭം മാത്രമേ ആ മൃഗം തരാറുള്ളൂ പിന്നെ ഒരു കാര്യം എന്താന്ന് ചോദിച്ചാൽ അതിൻ്റെ എന്ത് ഗുണമാണേലും അത് നമ്മളത് നന്നായിട്ട് ഉപയോഗിച്ചാൽ നമുക്കത് സാമ്പത്തികമായിട്ട് നല്ല ഒരു നിലവാരത്തിലേക്ക് തന്നെ അതിനെ എത്തിക്കാൻ നമുക്ക് സാധിക്കും അത് നമ്മുടെ ആ ഒരു പ്രക്രിയപോലെ നമ്മുടെ ശ്രദ്ധപോലെ ഇരിക്കും ഇപ്പോൾ ഏതൊരു മൃഗം ആണെങ്കിലും അതിനെ നമ്മൾ പരിപാലിക്കുന്ന പോലെ അതിനെ നമ്മൾ വളർത്തുന്ന പോലെ ഇരിക്കും അതിൻ്റെ ഒരു ബാക്കി കാര്യങ്ങളും എല്ലാം തന്നെ